പെട്രോളിൻ്റെ വിലവർദ്ധനവ് ബൈക്ക് യാത്രക്കാരെ അതല്ലെങ്കിൽ മറ്റ് ഏതു വാഹനവും ഓടിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും വളരെയേറെ ബാധിച്ചിട്ടുണ്ടെന്നു മനസ്സിലാക്കണം കാരണം അതില്ലാതെ പെട്രോളില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് യാദാര്ത്ഥ്യമാണ് ഒരു കിലോ മീറ്ററോൾ പെട്രോൾ ഒരു കിലോ ഒരു ലിറ്റർ പെട്രോളിൽ ഇത്രയ്ക്കു ശരാശരി കിലോ മീറ്റർ നാൽപത് കിലോ മീറ്റർ പോവാമെങ്കിൽ അതിനു ചെലവാകുന്നത് നൂറു രൂപയെങ്കിൽ പെട്രോൾ വിലവർധനവു കാരണം നൂറ്റിപ്പത്ത് രൂപയായാൽ ആ ഒരു കിലോ മീറ്ററിൽ ആ ഒരു രൂപയുടെ പത്ത് ഒരു ലിറ്റർ പെട്രോൾ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നാൽപ്പത് കിലോ മീറ്റർ ആവുക എന്നുള്ളതും പത്തു രൂപയുടെ നഷ്ടമാണു സംഭവിച്ചത് വർദ്ധന പെട്രോൾ വർദ്ധനയിലൂടെ പത്തു രൂപയാണു നഷ്ടം സംഭവിച്ചത് അതുകൊണ്ടു തന്നെ ഓരോ വാഹനമോടിക്കുന്ന ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ വർദ്ധന പെട്രോൾ വില വർദ്ധനവ് അവരുടെ യാത്രയ്ക്ക് അതല്ലെങ്കിൽ അവരുടെ വാഹനത്തിലെ ഇന്ധനത്തിൽ വളരെ വളർച്ച വളരെയേറെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതു മനസ്സിലാക്കണം അതുപോലെ തന്നെ അമിത ഉപയോഗം പരിസ്ഥിതിക്കു ഹാനികരമാണ് ഹാനികരമാണ് എന്നു നാം മനസ്സിലാക്കണം കാരണം ഇന്ന് ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ അതല്ലെങ്കിൽ മറ്റ് പബ്ലിക് വാഹനങ്ങൾ നമുക്ക് അവൈലബിളാണ് അതുകൊണ്ടുതന്നെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ദൂരം സഞ്ചരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അവരൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗപ്പെടുത്തിയാൽ അതു പരിസ്ഥിതിയെ സഹായിക്കും പെട്രോൾ അളവിനെ അതുപോലെ പെട്രോളിനെ സംരക്ഷിക്കും എന്നു നമ്മള് മനസ്സിലാക്കണം അമിതമായി ഒരാവശ്യവുമല്ലാതെ വാഹനം ഉപയോഗിക്കുന്നത് ഇന്ധനം ഉപയോഗിക്കുന്നതു തീർച്ചയായും പരിസ്ഥിതിക്കു ദോഷമാണ് കാരണം അതിൽ നിന്നും പുറന്തള്ളുന്ന വായു പരിസ്ഥിതിയെ വളരെയേറെ മലിനമാക്കുന്നു അതുകൊണ്ടുതന്നെ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിസ്ഥിതിയെ ബാഡായി ബാധിക്കുകയും അതൊക്കെ അതൊക്കെയും പരിസ്ഥിതിക്കു ദോഷം സംഭവിപ്പിക്കുകയും ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിൽ നാമൊക്കെ പെട്രോളിൻ്റെയും ഇന്ധനത്തിൻ്റെയും വാഹനങ്ങളുടെയും ഉപയോഗം വളരെയേറെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്